അങ്ങനെ സംഗീത ഇനം എന്നൊന്നുമില്ല എനിക്ക് പാട്ട്കള് മൊത്തത്തില് ഭയങ്കരിഷ്ദമാണ് കൂടുതൽ ഞാൻ കേൾക്കാറ് പണ്ടത്തെ ക്ലാസ്സിക് ക്ളാസ്സിയ്ക്കൽ സോങ്സ്സ് കുറച്ചും കൂടെ കൂടുതൽ ഞാൻ കേൾക്കാറുണ്ട് അത് ഇപ്പോൾ ഇന്ന ഇത് കിട്ടുന്നുണ്ട് കുറച്ചുംകൂടി ഇപ്പത്തെ വെസ്റ്റേൺ അല്ലെങ്കിൽ പോപ്പ് സോങ്ങ്സിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കൊ എനിക്ക് കുറച്ചുംകൂടി കേൾക്കാൻ ആഗ്രഹം പണ്ടത്തെ ഗാനങ്ങളാണ് അതിപ്പം സിനിമ പാട്ടുകൾ മാത്രമൊന്നുമല്ല ഏത് ഗാനങ്ങളായാലും എനിക്ക് പണ്ടത്തെ പാട്ടുകളാണ് കുറച്ചും കൂടി കേൾക്കാനിഷ്ടം പിന്നേ എന്താ ഇപ്പത്തെ പാട്ടുകൾ നല്ലതല്ല എന്നല്ല ഇപ്പത്തേ പാട്ടുകള് ഭയങ്കര എന്താ പറയുക കുറെ ഒക്കെ പണ്ടത്തെ പാട്ടുകളെ പോലെ തൻ പണ്ടത്തെ പാട്ടുകളുടെ റീമേക്കാണ് ഇപ്പത്തെ പാട്ടുകള് കുറെയൊക്കെ അതൊന്നും അത്ര ര രസം ഇല്ലായ്കയില്ല ബട്ട് എന്താ പറയുക എൻ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ നല്ലതാണെല്ലാം എല്ലാ പാട്ടുകളും വളരെ നല്ലതാണ് അങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെ പറയുമ്പം നമുക്ക് ഭയങ്കര മൈൻ്റെ നമ്മുടെ മനസ്സ് ഭയങ്കര കാമായിട്ടായിരിക്കും മൈൻഡ് പോകുക അതിന് വേണ്ടിയിട്ടാണ് നമ്മള് മെയ്ൻലി ഏറ്റവും കൂടുതൽ ആൾക്കാര് പാട്ട് കേൾക്കാറ് പാട്ട് കേൾക്കുമ്പം നമ്മുടെ മ മനസ്സ് ഭയങ്കര ശാന്തതയിലേക്ക് പോകും എന്നാണ് എൻ്റ ഒക്കെ വിശ്വാസം എനിക്കങ്ങനെ പലപല സിറ്റ്വേഷൻസ്സും ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക എന്നെ പണ്ട് അല്ല ഇതിപ്പോൾ എൻ്റേന്ന് മാത്രമല്ല എല്ലാവരും ചെറുപ്പം കുട്ടിയ കുട്ടികളെ തൊട്ടിട്ട് അവരെ ഒക്കെ കിടത്തി ഉറക്കുന്നതിനും എണീപ്പിക്കുന്നതും ഒക്കെ പാട്ടിലൂടെയാണ് പാ എനിക്ക് എന്താ പറയുക ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പണ്ടത്തെ ടൈപ്പ് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് പാട്ട് പണ്ടത്തെ പാട്ടുകളൊക്കെ ക്ലാസ്സിക്കൽ സോങ്ങ്സ്സ് അല്ലെങ്കിൽ റൊമാന്റിക് സോങ്ങ്സ്സ് അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് നമ്മള് എന്താ പറയുക നമ്മള് കുറച്ചുംകൂടി ഹാപ്പിയായിട്ടിരിക്കുമ്പൊഴും അല്ലെങ്കിൽ സാടായിട്ടിരിക്കുമ്പൊഴും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ടൈപ്പ് പാട്ടുകളായിരുന്നു പാട്ടുകളാണ് ഇതൊക്കെ എൻ ഇപ്പം നം ഇപ്പത്തെ ഇപ്പത്തെ പല ആൾക്കാർക്കും പൊതുവേ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്ങ്സ്സിനോടായിരിക്കും കൂടുതൽ താൽപ്പര്യം പക്ഷെ എന്താ എനിക്ക് ഇതാ ഇതാണ് എനിക്കിതാണിഷ്ടം അതിപ്പം പ്രത്യേകിച്ച് ഒര് റീസൺ അങ്ങനെ എനിക്ക് കാരണമൊന്നും ഇല്ല എനിക്ക് അതാണിഷ്ടം മേയ്ൻലി എനിക്ക് തോന്നുന്നു എന്റെ അ വീട്ടില്ലെല്ലാവരും അങ്ങൻത്തെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുക അപ്പോൾ നോർമലി എനിക്ക് ഞാനും അങ്ങൻത്തെ പാട്ടുകൾ കേൾക്കാൻ പോവുകയാണ് കാരണം ഞാൻ അങ്ങനത്തെ പാട്ടുകളാണ് കേൾക്കാറ് അതെനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ട്കാര് അങ്ങനെ ആയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടുകാർക്കൊക്കെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം